ഞാൻ യൂസ് ചെയ്ത പ്രൊഡക്റ്റ് പെർഫ്യൂമായിരുന്നു കമ്പനിയുടെ പേരൊന്നും പറയുന്നില്ല അത് ഓർഡർ കൊടുത്ത ടൈമില് വരുന്നില്ല വന്നത് അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് പ്രൊഡക്റ്റ് വീട്ടില് എത്തി എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഞാൻ ഉദ്ദേശിച്ച സാധനമല്ല വന്നത് അയിൻ്റെ അതിൻ്റെ മണം വേറെ ആരുന്നു അതേപോലെ വന്നപ്പോൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് എന്താ പറയുക എനിക്ക് അത്ര നന്നായിട്ട് തോന്നിയില്ല അതുപോലെ അത് കുറെയൊക്കെ അല്ലർജി പോലെ ഉണ്ടായേക്കാം ചെയ്തു മേത്തൊക്കെ അത് അയിൻ്റെ ഒരു ഡ്രോബാക്കായിരുന്നു ആ പ്രോഡക്റ്റിൻ്റെ എനിക്ക് അത് അത്ര ഇഷ്ട്ടപ്പെട്ടില്ല